സംസ്ഥാനത്ത് ഇപ്പോൾ ആചരിച്ചു വരുന്ന പ്രധാന മതങ്ങൾ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മൂന്ന് തരം മതങ്ങളാണ് ഇപ്പോൾ സംസ്ഥാനത്ത് സംസ്ഥാനത്ത് എന്നല്ല ഇന്ത്യ ഒട്ടാകെ ആചരിച്ചു വരുന്ന മതങ്ങളെന്ന് വേണമെങ്കിൽ പറയാം അപ്പം മെയിനായിട്ട് മൂന്ന് മതങ്ങളാണ് ആചരിച്ച് വരുന്നത് അപ്പം ഹിന്ദു മതമുണ്ട് ഹിന്ദു മതമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ പൊതുവെ വേറൊരു രീതിയിലുള്ള കൾച്ചർ കാര്യങ്ങളൊക്കെയാണ് ഹിന്ദു മതത്തിൽ വരുന്നത് ഹിന്ദു മതമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കൂടുതലായിട്ടും എല്ലാവരും ഈ അമ്പലങ്ങളിൽ പോവുക അതായത് അവരുടേതായ രീതിയിലുള്ള ഒരാചാരങ്ങൾ അതായത് കൃഷ്ണൻ വിഷ്ണു അങ്ങനത്തെ കുറെ ദൈവങ്ങളെ ആചരിക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഹിന്ദു ഹിന്ദു മതത്തിൽ കൂടുതലായിട്ട് യൂസേയ്യുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ഇസ്ലാം മതമാണ് ഇസ്ലാം മതത്തിൽ അവരുടെ നബി അങ്ങനെ അങ്ങനത്തെ കുറച്ച് എന്താ പറയുക ദൈവങ്ങൾ കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അവർ കൂടുതലായിട്ടും എല്ലാ ദിവസങ്ങളിലും അതായത് എല്ലാ ആഴ്ചയിലും വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് കൂടുതലായിട്ട് പള്ളിയിൽ പോയിട്ട് അവരുടെ മതാചാര പ്രകാര മതാചാരങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അത് ഇസ്ലാം മതത്തിലാണ് കൂടുതലായിട്ടും പിന്നെ ക്രിസ്തുമതം എന്ന് പറഞ്ഞഴിഞ്ഞാല് ഞായറാഴ്ച്ച ദിവസങ്ങളിലാണ് ഇവർ കൂടുതലായിട്ടും പള്ളിയിൽ പോകുന്നത് അപ്പോൾ പള്ളീന്ന് പറഞ്ഞ് കഴിഞ്ഞാല് അവരുടെ യേശു അങ്ങനത്തെ ദൈവങ്ങളാണ് കൂടുതലായിട്ട് ക്രിസ്ത്യാനികളിൽ ഉള്ളത്